മേ ഐ കം ഇൻ ടീ ആ ഓക്കേ രാജീവിൻ്റെ അച്ഛനാണേ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാരുന്നേ ആ ഓക്കേ ആ ഓക്കേ വാശി ആ ആ ആ വീട്ടിലിപ്പോൾ അവള് നോക്കുന്നുണ്ട് കറക്റ്റായിട്ട് പിന്നെ നമുക്ക് വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എത്താൻ സമയമെടുക്കുന്നുണ്ട് അപ്പൊൾ വൈഫാണ് കാര്യങ്ങളൊക്കെ നോക്കണത് ഇവര് വന്ന് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം കളിക്കാൻ പോയിട്ടൊരു അഞ്ചര ആറുമണിക്കൊക്കെ വരും പിന്നെ ഒരേഴ് എട്ട് ഒൻപത് പഠിക്കും എല്ലാദിവസവും പിന്നെ രാവിലെ ഒരഞ്ചുമണി അടുത്തിട്ട് പിന്നെ ആ ഒരു ഒരു അഞ്ചു മണിക്ക് എണീച്ച് ഒരു ഒരുമണിക്കൂർ എന്തൊക്കെയോ നോക്കണ കാണാം അവന് വലിയ പിടിപ്പില്ല എന്നാലും വൈകുന്നേരം രാത്രി നോക്കുന്നുണ്ട് ഒരേഴ് എട്ട് ഒൻപത് വരെ എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വെച്ച് പഠിക്കുന്നുണ്ട്

ഓ കളി കേറി ആ ഓക്കേ ആ മാത്സില് ആ മാത്സ് എന്തായാലും ഞാന് ഇപ്രാവശ്യം അവനെ വൈഫിന് അത്ര മാത്സ് അറിയില്ല അപ്പൊൾ മാത്സിന് ട്യൂഷന് വിടണമെന്നുണ്ട് എനിക്കാണേൽ സമയം കിട്ടാത്ത കാരണം കൊണ്ടാണ് ഞാനത്യാവശ്യം മാത്സും കാര്യങ്ങളൊക്കെ ഓക്കേയാണ് പക്ഷെ എനിക്ക് പറഞ്ഞുകൊടുക്കാനുള്ള സമയം കിട്ടാത്ത കാരണം കൊണ്ടേ എന്തായാലും ഞാനെത്തുമ്പോൾ ലേയ്റ്റ് ആവും

മാത്സിന് ട്യൂഷൻ എങ്ങാനും വിടണോ അതെയതെ ആ ഓക്കേ മാഡം ഞാന് എന്തായാലും നോക്കാം മാക്സിമം ഇനിയിപ്പോൾ രണ്ടാഴ്ചയും കൂടിയുണ്ടാവുള്ളൂ എനിക്ക് പുറത്ത് വർക്ക് അത് കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് വീട്ടില് നേരത്തെ എത്താൻ പറ്റണ രീതിയിലാരിക്കും അങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെ മാത്സ് ഞാൻ തന്നെ നോക്കിക്കോളാം

ആ ഓക്കേ മാത്സിൻ്റെ കാര്യം ഞാൻ റെഡിയാക്കാം മാഡം കുഴപ്പമില്ല വേറെ ബാക്കിയെല്ലാ സബ്ജക്റ്റും ഒക്കെയാണല്ലൊ അല്ലെ ഓക്കേ മാഡം താങ്ക്യൂ താങ്ക്യൂ